പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ ജീവിക്കാനായുള്ള മാർഗ്ഗങ്ങൾ ആദ്യമായി തന്നെ അവരേറ്റവും കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാരും തന്നെ പറയുന്നത് പോലെ തന്നെ ഇവിടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെന്റ് ചെയ്യുന്നത് തന്റെ ദൈനം ദിന ജീവിതത്തിനുള്ള റെവന്യൂ അല്ലെങ്കിൽ ആ തന്റെ ദൈനം ദിന ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈനം ദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എടുക്കുന്ന പണം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്നാണ് ഓക്കേ ഇവിടെ കൃഷിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നെല്ലാണ് ഇവിടെ ബേയ്സിക്കലി എല്ലാവരും നെല്ലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നെല്ലും അതുപോലെയുള്ള പച്ചക്കറി കൃഷികളും ഏറ്റവും വലിയ വെല്ലുവിളി ഇവർ നേരിടുന്നത് നേരിടുന്നത് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ അത് മഴ സമയത്താണ് ഈ വിളവെടുക്കുന്നത് സമയമാകുമ്പോൾ അല്ലെങ്കിൽ കായകൾ കായ്ച്ച് വിളവെടുക്കാറാകുന്ന സമയത്ത് വലിയ മഴകൾ പെയ്യും വലിയ മഴകൾ പെയ്യുമ്പോഴത്തേക്കും അവരുടെ പാടങ്ങളിൽ വെള്ളം കയറും അതുപോലെ തന്നെ നെല്ല് ചീയാൻ തുടങ്ങും ഒരിക്കലും അവർക്ക് ഒരു പ്രൊഡക്റ്റിവിറ്റിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വിളവെടുക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇവടത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗവൺമെൻ്റ് പല സബ്സിഡികളും അതുപോലെ തന്നെ പല ഇൻസെൻ്റീവ്സും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഉപയോഗപ്പെടുത്താൻ അതുപയോഗിച്ചാൽ പോലും നമുക്ക് അവസാനമാകുമ്പോഴത്തേക്കും ഈ മഴ അല്ലെങ്കിൽ എനി ക്ലൈമറ്റ് ചേയ്ഞ്ച് അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പം ആൾക്കാർ വിചാരിക്കാത്ത തരത്തിലുള്ള ക്ലൈമറ്റ് ചെയിഞ്ചുകളുണ്ടാകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതുവായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം അവർ അതിന് വേണ്ടി നേരത്തേ ഒരിക്കലും ഒരു പ്രീക്കോഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടു തന്നെ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൃഷിനാശങ്ങൾ വളരെ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ ഇപ്പോഴാണെങ്കിൽ പോലും ഇവിടത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഡിപ്പെന്റ് ചെയ്യുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ അത് കൃഷിയെ തന്നെയാണ് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ വളർത്തലാണ് മൃഗങ്ങളെ വളർത്തുന്നതാണ് രണ്ടാമതായി ഞാൻ ശ്രദ്ധ എന്റെ ശ്രദ്ധയിൽ പെട്ടത് ആൾക്കാർ മിക്കവാറും തന്നെ പശു ആട് കോഴി താറാവ് എന്നീ വർഗ്ഗങ്ങളിൽപ്പെട്ട ജീവികളെയാണ് വളർത്തുന്നത് ഇവിടെ ഇവരുടെ മുട്ട പാൽ അങ്ങനെയൊയുള്ള കാര്യങ്ങൾ വിറ്റാണ് ആൾക്കാർ ദൈനദിന ജീവിതത്തിനുള്ള ഓരോ ഓരോ റെവന്യൂവായിട്ട് നേടുന്നത് പിന്നെ ഇവിടത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആൾക്കാർ കലങ്ങൾ കുടങ്ങൾ അതുപോലെ തന്നെ മൺചട്ടികൾ എന്നിവയൊക്കെ വിൽക്കുന്നതാണ് അതിലൂടെ ദൈനം ദിന ജീവിതത്തിന് വേണ്ടി പണം നേടുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയുണ്ട് ഇവിടത്തെ ആൾക്കാരുടെ വലിയ ഒരു സവിശേഷതയാണ് ഇങ്ങനത്തെ കലയിൽ കൂടുതൽ ഇമ്പോട്ടൻസ് കൊടുക്കുക അവരുടെ കൊച്ചുങ്ങളെ ആണെങ്കിലും അവരുടെ പിള്ളേർ ആണെങ്കിൽ പോലും അവർക്ക് അവർക്കെല്ലാം ഈ കല പറഞ്ഞു കൊടുക്കും കാരണം ഒരിക്കലും അവർക്ക് ഒരിക്കലും ഒരു ജോലി ഇല്ലായ്മയോ അല്ലേ തൊഴിലില്ലായ്മയോ വരാൻ സാധിക്കരുത് വരാതിരിക്കരുത് ഓക്കേ അതുകൊണ്ട് അതിനോടു കൂടിയാണ് ആൾക്കാർ ഇങ്ങനെ ഇത് പാരമ്പരാഗതമായിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്ക് ണ്ടിരിക്കുന്ന ഒരു സംരംഭവാണ്